ആ അതെ പറഞ്ഞോളൂ ഓക്കെ എന്തായിരുന്നു പേര് ഓക്കെ അജിത്ത് അല്ലേ അജിത്ത് കൊളെസ്ട്രോൾ ചെക്ക് ചെയ്യാൻ തന്നതല്ലായിരുന്നോ

കൊളെസ്ട്രോൾ റിസൾട്ട് വന്നിട്ടുണ്ട് കൊളെസ്ട്രോൾ നമ്മുടെ നോർമൽ ലെവലിനേക്കാളും കൂടുതലാണല്ലോ ആ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളോക്കെയാണോ കഴിക്കൽ ആ ഓക്കെ കൊളെസ്ട്രോൾ ഇപ്പം നമുക്ക് ഉണ്ടാവുന്നൊരു നോർമൽ ലെവൽ ഉണ്ട് അതിനേക്കാളും എത്രയോ അധികം ആണ് ഇപ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് വരുന്നത് അതുകൊണ്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക മാക്സിമം കേട്ടോ മാക്സിമം എന്നല്ല തീരെ കഴിക്കാണ്ടിരിക്കുക അപ്പോൾ അവോയിഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഫാറ്റി ആയിട്ട് വരുന്ന ഇപ്പം ഈ ഷവർമ പോലെയുള്ള അൽഫാം പോലെയുള്ള ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നന്നായിട്ട് കൊഴുപ്പുള്ള വരുന്ന ബ്രോയിലർ കോഴീൻ്റെയൊക്ക ആ ഓയിലി ആയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക മാക്സിമം എണ്ണകടികളൊക്കെ ഒഴിവാക്കുക അല്ലാണ്ട് ഉള്ള ബേക്കറി എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുന്നത് പിന്നെയും കുഴപ്പമില്ല ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ഒക്കെ ഒഴിവാക്കുക ആ ഓക്കെ വ മാക്സിമം ഇപ്പം ഓക്കെ പറഞ്ഞോളൂ മാക്സിമം ഫ്രൂട്സ് സാധനങ്ങൾ അധികം കഴിക്കുക പിന്നെ വെജിറ്റബിൾ പച്ചക്കറികളും നല്ലവണ്ണം കഴിക്കാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ കൊളെസ്ട്രോൾ നല്ല ഹൈ ലെവലിലാണ് ഇരിക്കുന്നത് ഓക്കെ നല്ല വെജിറ്റബിളും ഫ്രൂട്സും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ നല്ലവണ്ണം കൊണ്ടുവരുക അതുപോലെ മാക്സിമം വർക്ക്ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുക ഓടാനൊക്കെ പോവുന്നത് നാല്ലതായിരിക്കും ഓക്കെ ഫുഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ വെജിറ്റബിളും ഫ്രൂട്സും മാക്സിമം കൊണ്ടുവരുക കാരറ്റ് അങ്ങനത്തെ പാവക്കയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ കഴിക്കുക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫ്രൂട്സ് ഉണ്ടല്ലോ ഇപ്പം മുന്തിരിൻ്റെയൊക്കെ ജ്യൂസ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ ഏകദേശം കളയുന്നൊരു ഇതാണ് അപ്പം മുന്തിരിങ്ങ ജ്യൂസ് അതുപോലെ ആ ആ ആപ്പിൾ ഓക്കെ നല്ലതാണത് ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ഷെയ്ക്ക് ഒക്കെ കുടിക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാവും കാരണം നമുക്ക് ആ ഒരു പിന്നെ നമുക്കിങ്ങനെ ഒരു ഓവർ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ നമുക്ക് തോന്നില്ല അങ്ങനെ അപ്പിളിന്റെയൊക്കെ ഷെയ്ക്ക് ഒക്കെ കുടിക്കുവാണെങ്കിൽ ജ്യൂസ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഏത് വിധത്തിലാണെങ്കിലും ഉള്ളിനകത്ത് പോവുന്നത് നല്ലതാണ്

ഓ തീർച്ചയായും തീർച്ചയായും തീർച്ചയായും ഓക്കെ ആ തീർച്ചയായും വന്നൊന്ന് ചെക്ക് ചെയ്യണം ഓക്കെ താങ്ക് യൂ